പ്രാദേശിക ബിസിനസ്സുകളുടെ വളർച്ചയെ ടൂറിസം എങ്ങനെ സഹായിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസം ഇപ്പോൾ ഒരു ബിസിനസ്സ് ആയിട്ടാണ് ഇപ്പം എല്ലാവരും എടുക്കുന്നത് കാരണം അതായത് പിന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് പൈസയൊക്കെ മേടിച്ച് അതവിടെ കേ കയറി കാണാനുള്ള പൈസയൊക്കെ മേടിച്ച് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ലാഭമാണ് ചിലപ്പം ഇങ്ങനെ നല്ല വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ്സ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പം ചിലപ്പം ന ആരുടെയെങ്കിലും സ്ഥലം ഒക്കെ ആയിരിക്കും അപ്പം അവരത് അതൊരു ടൂറിസ്റ്റ് പോ സ്പോട്ട് ആക്കി എടുക്കും അപ്പം ഒരുപാട് പേരും ആൾക്കാരൊക്കെ വരും പിന്നെ പിന്നെ അവർ ഇപ്പം ഒരു ഒരാൾക്ക് കയറാൻ ചിലപ്പോൾ നാൽപ്പത് രൂപയായിരിക്കും പിന്നെ അതൊരു അറുപത് രൂപ ആക്കി അങ്ങനെ മാറ്റി മാറ്റി മാറ്റി പിന്നെ അങ്ങനെ പിന്നെ അതൊരു ബിസിനസ്സ് ആക്കി തന്നെ എടുക്കുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേർ ഇപ്പം നമുക്കിടയിലുണ്ട് ടൂറിസത്തിൻ്റെ ഒരു ഇതായിട്ട് പിന്നെ ആ പിന്നെ അത് കുറച്ചും കൂടെ പ്രാബല്യത്തിൽ എത്തുമ്പം പിന്നെ ഒരുപാട് ജോലിക്കാരെ ഒക്കെ കയറ്റി അതായത് അവർക്ക് അതായത് ജോലിയെല്ലാം കൊടുത്ത് അങ്ങനെ ലാഭം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ജോലിക്കാരെയെല്ലാം കൂട്ടി ജോലിയെല്ലാം കൊടുക്കും അപ്പം അങ്ങനെ ടൂറിസം ഒരു ബിസിനസ്സ് ആക്കിയാണ് ഇപ്പം എടുക്കുന്നത്